ഹലോ ഹലോ ഹലോ ഇത് ഹൈ റേഞ്ച് ഹോം അപ്ലൈൻസ് സ്റ്റോർ ആണോ ആ ഹാ ഹ ആ ഞാനിത് ഉദയഗിരി ഉദയഗിരി ഉദയഗിരിയിൽ നിന്ന് ഞാൻ ഞാനേ വിളിച്ചത് എനിക്കൊരു മിക്സർ ഗ്രൈൻഡർ വേണം മിക്സർ ഗ്രൈൻഡർ അത് ഞാനേ എനിക്ക് അങ്ങനെ കമ്പനിയെ കുറിച്ച് അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ല ഏതൊക്കെ ഏറ്റവും നല്ലത് ഏതാണ് മ്മ് മ്മ് ഈ ഉഷയുടെ ഉഷയുടെ ഒക്കെ ഉണ്ടോ ആ ഹ് ഹ് ഹ് ആ ഈ ആ പ്രീതിയുടെ നല്ലതാണ് അല്ലേ പ്രീതിയുടെ നല്ലതാണ് അല്ലേ

ഓഹ് ഓഹ് ശരി ശരി ശരി ഹ് ഹ് ആ ഹ് ഹ് ഹ് ഹ് ആ ഓ ഓ ഓ ശരി ശരി ശരി മ്മ് മ്മ് മ്മ് ആ ഹ് ഹ് ഹ് ആ അത് എന്നാ ആ ആ ഓ ഓ ശരി ശരി ശരി

ആ ആ ആ ഈ വാറണ്ടി വാറണ്ടി എത്ര നാളാണ് വാറണ്ടി ടു ഇയർ ഉണ്ട് ആ ഹ് ഹ് ഹ്ഹ് ഇത് അത് ഏറെ എത്രയാണ് വില മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് പ്രീതിയാണ് ഏറ്റവും വിലകൂടിയത് വില കൂടുതൽ മറ്റേ ബട്ടർഫ്ലൈ ഒക്കെ മ് മ്മ് മ്മ് മ്മ് ആ ഹ്ഹ ആ ഹ് ഹ് ഹ് ഓ ശരി ശരി ആ ഹഹ് ഓക്കേ ഓക്കേ ഞാൻ എനിക്ക് ഇത്തിരി തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ അടുത്ത ദിവസത്തേക്ക് വേണമായിരുന്നു അപ്പം ഞാൻ നാളെ നോക്കട്ടെ നാളെ വരാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പം ഇത് ഈ പതിമൂന്ന് അഞ്ഞൂറ് ടോപ്പ് അല്ലെ അത് ഫിക്സ് വിലയാണോ എന്തേലും ഡിസ്കൗണ്ടോ മ്മ് മ്മ് മ്മ് മ മ്മ് മ്മ് ആ ഹ ഹ് ഹ് ഹ് ഹ് ആ ഹ് ഹ് ഹ് ഈ ആ അതെ ഈ പഴയ മിക്സി ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുമോ അങ്ങനെ കുറയ്ക്കുമോ എനിക്ക് പഴയത് ഇരിക്കുന്നത് പ്രീതിയുടേതാണ്

ആ ഓഹ് ഓഹ് ഓഹ് ആ ഓക്കേ ഓക്കേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഒരു ഒരു നാലു മണിക്ക് ശേഷം വരാം ആ ആ ആ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ എന്നാൽ ഞാൻ വന്നോളം വന്നോളം ആ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ശരി ആ